ഞങ്ങളുടെ ഗ്രാമത്തിൽ പലതരം വ്യവസായങ്ങളുണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ടും വ്യവസായം എന്നൊക്കെ പറഞ്ഞ്കഴിഞ്ഞാൽ നമുക്ക് ഏലക്കൃഷിയാണ് കൂടുതലായിട്ടും നമ്മുടെ ഗ്രാമത്തിൽ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഏലകൃഷി നല്ലരീതിയിൽ വേഗമോ വ്യാപകമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് കാപ്പി ഇതൊക്കെ കാപ്പിയെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നല്ലരീതിയിലുണ്ട് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാപ്പിയെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നല്ലരീതിയിലുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെയും ഉണ്ട് നമ്മൾ വായനാട്ടിൽ നിന്ന് നം ഇവ് ഇവിടെ ഒക്കെ കൊണ്ടു വന്ന് വെക്ക് തൈ കൊണ്ടു വെച്ചിട്ട് അങ്ങനെയാണിപ്പോൾ വയനാടൻ കാപ്പിയായിട്ടാണ് നമ്മളിവിടെ വളർത്തികൊണ്ടിരിക്കുന്നത് വയനാടൻ കാപ്പി ഭയങ്കര നല്ല ഡിമാണ്ടുള്ളൊരു കാപ്പിയായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് കൃഷി ബിസ്സ ബിസിനസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയൊരു വ്യവസായമാണ് അപ്പോൾ അത് നല്ലരീതിയിൽ നമ്മൾ വ്യവസായം പലരീതിയിൽ ചെയ്തിട്ടുണ്ട് അതായതിപ്പോൾ തേയില തേയില വ്യവസായം അത് നല്ലരീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേയില അതായതിപ്പോൾ ചായപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനും പൊടിപ്പിക്കാനും വറക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മെഷീൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാരീതിയിലും ഇപ്പോൾ കാപ്പിയുണ്ട് ആ കാപ്പി പൊ പൊടിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബിസിനസ്സായിട്ടും നമുക്കൊരു തൊഴിലായിട്ടും എല്ലാം ഏറ്റെടുക്കുന്നുണ്ട്